കോവിഡ് കാലത്ത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഒരു സമയമായിരുന്നു കോവിഡ് കാലം അതായത് ലോകത്തുള്ള എല്ലാ ജനങ്ങളും വീട്ടിലിരുത്തി ജീവിതം എന്തെന്ന് പഠിച്ച ഒരു സമയമായിരുന്നു അത് അതുവരെ അപ്പുറവും ഇപ്പുറവും ആൾക്കാർ ഒരു അപ്പം മനുഷ്യന്മാർ മുഖം പോലും നോക്കാതെ ഒരു നോക്കാൻ സമയമില്ലാത്ത ഒരു കാലമായിരുന്നു അതിനുമുമ്പ് ഉണ്ടായിരുന്നത് കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് മനുഷ്യൻ മനുഷ്യൻ എന്താണെന്ന് പഠിച്ചു അടുത്തുള്ള വീട്ടുകാർ എന്താണെന്ന് പഠിച്ചു പരസ്പരം സഹായിക്കാൻ പഠിച്ചു അതൊരു നല്ലൊരു അവസരവും കൂടിയായിരുന്നു പിന്നെ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച ആൾക്കാരുമുണ്ട് അതായത് വരുമാനം ഇല്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ സ്കൂളില്ല കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലവും കൂടിയായിരുന്നു കൊറോണ കാലം അതായത് കൊറോണ കാലത്തിൽ നല്ല വശങ്ങളും

വിനിമയം ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആൾകാർ പോയതാന്ന് യൂട്യൂബ് ചാനല് കുറെ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിലേക്ക് തിരിഞ്ഞ് അതിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം അവർ ചെയ്യുന്നത് പാചക മേഖല പാചക മേഖലയിൽ നിന്ന് ആ മേഖലയിലേക്ക് അവർ തിരിയുകയും പുതിയ പുതിയ വി പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന പരീക്ഷണം നടത്തുകയും അതിൽ വിജയിക്കുകയും അത് യൂട്യൂബ് വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ട് ജനങ്ങൾ അതിനെ കണ്ട് അവർ അത് ആ മാർഗ്ഗം പിന്തുടർന്ന് അവർ അതിനെ പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ജന സ്ത്രീകൾക്ക് ഇതിലൂടെ വരുമാനം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനും ഒരു കുറെ യൂട്യൂബ് നോക്കി കുറെ വിഭവങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യായിട്ട് ഒന്ന് ഉപയോഗിച്ചതാന്ന് ചക്ക ചക്കക്കുരു പായസം അപ്പം ആ സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു വിഭവമായിരുന്നു ചക്കക്കുരു ചക്ക മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലെ ചക്ക സീസൺ ആയിരുന്നല്ലോ അപ്പോൾ ചക്കക്കുരു ഉപയോഗിച്ച് ചക്ക ഉപയോഗിച്ച് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാം എന്ന് ഉപയോഗിക്കാം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചക്കക്കുരു പായ പായസം ഉണ്ടാക്കും ചക്കക്കുരു ജ്യൂസ് ഉണ്ടാക്കും പിന്നെ ചക്കക്കുരു ജ്യൂസ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ചക്കക്കുരു ജ്യൂസ് എന്ന് പറയുമ്പം ആദ്യം നമ്മൾ ചക്കക്കുരു നന്നായി കഴുകി വൃത്തിയാക്കി അതിനെ വേവിച്ചെടുക്കുക കുക്കറിലോ അല്ലാണ്ടോ എങ്ങനെയെങ്കിലും വേവിച്ചെടുക്കുക വേവിച്ച് തണിഞ്ഞ് അത് തണുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക മിക്സിയിൽ അടിക്കുന്ന സമയത്ത് തണുത്ത പാൽ പഞ്ചസാര ഇവ നന്നായി അതിന് പാചക പാകത്തിന് ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ അല്ലെങ്കിൽ ത ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചാലും മതി അങ്ങനെ തണുപ്പിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് മധുരം നോക്കുക എത്രത്തോളം കട്ടിയുണ്ട് എത്രത്തോളം മധുരമുണ്ട് എന്ന് നോക്കിയിട്ട് വീണ്ടും ആവശ്യത്തിനനുസരിച്ചിട്ട് അതിൻ്റെ സാധനങ്ങൾ ചേർക്കുക ചേർത്തിട്ട് കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ മേൽപ്പോട്ടേക് കുറച്ച് ബൂസ്റ്റ് പൊടിയോ ഹോർലിക്സ് പൊടിയോ എന്തെങ്കിലും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലൊരു പോഷക സമൃദ്ധമായ ഒരു പാനീയമായിട്ട് ഉപയോഗിക്കാവുന്ന ഇതിന് യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ഞാനും ചെയ്തതാന്ന് വട ഐറ്റംസ് എണ്ണ പലഹാരങ്ങൾ അതായത് ഉഴുന്നുവട പരിപ്പുവട ഉള്ളിവട പഴംപൊരി കിഴങ്ങ് ബോഡി ഇങ്ങനെയുള്ള പല എണ്ണ പലഹാരങ്ങളും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതിൽ പരിപ്പുവട എന്ന് പറയുമ്പം അത് നമുക്ക് കുറച്ചുകൂടി എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അതാണ് പിന്നെ പരിപ്പുവട ഉണ്ടാക്കണമെങ്കിൽ അത് കടലപ്പരിപ്പ് രണ്ട് മണിക്കൂർ നേരം കുതിർത്തു വയ്ക്കുക കുതിർത്തു വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില മല്ലിയില ഉപ്പ് പിന്നെ കുറച്ച് കാശ്മീരി മുളകുപൊടി അതൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് അത് നമ്മൾ കൈകൊണ്ട് നന്നായി കുഴച്ച് എടുത്ത് ചെറു ചെറിയ ഉരുളകളാക്കുക ഉരുളകളാക്കിയിട്ട് അതീന്ന് തിളച്ച എണ്ണയിലേക്ക് കയ്യിൽ കൈവച്ച് പരത്തിയിട്ട് തിളച്ച എണ്ണയിലേക്ക് ചെറിയ ചെറിയ പരത്തിയത് എണ്ണയിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരിട്ട് എടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു രുചിയോടെ കഴിക്കാൻ പറ്റുന്നതാന്ന് പിന്നെ നമ്മൾ ഞാൻ ഉണ്ടാക്കിയതാണ് ഉഴുന്നുവട ഉഴുന്ന് വടാന്ന് പറയുമ്പോൾ അത് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കുതിർത്തിട്ട് നന്നായി അരച്ചെടുക്കണം വെള്ളം അധികം ഒഴിക്കാൻ പാടില്ല അത് അരച്ചെടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് കുരുമുളക് ഉള്ളി കറിവേപ്പില ഉപ്പ് അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് പിന്നെ രണ്ടു കൈയിലും കുറച്ച് വെള്ളം എടുക്കുക വെള്ളം നനച്ചിട്ട് വെള്ളം കൈയ്യിലേക്ക് ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് അത് ഉഴുന്നുവടയുടെ ഷേപ്പ് ആക്കിയിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇടുക വറുത്തുകോരി എടുക്കുക അപ്പം അതും നല്ലൊരു പലഹാരമായിട്ട് മാറും പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കിയതാണ് പഴംപൊരി ഉള്ളിവട അങ്ങനെയുള്ള പല പലഹാരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കി ഏതാണെന്ന് പായസം കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കി പിന്നെ സേമിയ പായസം അടപ്രഥമൻ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കോവിഡ് കാലത്ത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് പിന്നെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഗോതമ്പ് തരി അപ്പം അത് വെച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കോവിഡ് കാലത്ത് നമുക്ക് എന്തൊക്കെ ഭക്ഷണം കിട്ടുന്നോ അതൊക്കെ നമ്മള് ഉപയോഗിച്ച് ആ കാലഘട്ടത്തെ നമ്മ അതിജീവിച്ചവരാണ് അപ്പോൾ അത് ഗോതമ്പ് തരികൊണ്ട് പായസം ഉണ്ടാക്കി എങ്ങനെ വെച്ചാൽ ഗോതമ്പ് തരി ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിക്കുക തേങ്ങാപ്പാൽ വെച്ചിട്ട് വേവിച്ചതിനു ശേഷം രണ്ടാം വീണ്ടും അതിലേക്ക് ബെല്ലം ചേർത്തിട്ട് വീണ്ടും നന്നായി വേവിക്കുക വേവിച്ചിട്ട് തിളച്ചതിനു ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിക്കുക ഒന്നാം പാൽ ഒഴിച്ചിട്ട് നന്നായി തിളച്ചിട്ട് പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് ഇതെല്ലാം ചേർത്തിട്ട് നല്ല ചൂടോടെ ഉപയോഗിക്കുക അങ്ങനെയും പാചകം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടാക്കിയതാണ് പുലാവു പുലാവു നെയ്ചോറ് ചിക്കൻ കറി ഇങ്ങനെയുള്ള പല ഐറ്റംസും വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെള്ളരിക്ക തോരൻ ചക്കക്കുരു തോരൻ പിന്നെ ചക്കെൻ്റെ ചവണിന്ന് പറയും നമ്മൾ ഈ നാട്ടിൽ അവിടെ എന്ത് പറയുന്നതെന്ന് അറിയില്ല ചക്കെൻ്റെ ചവണി കൊണ്ട് അത് നേര് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതുകൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് ചക്ക ഇതെല്ലാ വിഭവങ്ങളും വെച്ചിട്ട് എല്ലാം ഭാഗങ്ങൾ വെച്ചിട്ടും കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചക്കെൻ്റെ കൂഞ്ഞിൽ കൂഞ്ഞിൽ വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചക്കക്കുരു അതേപോലെ ചേർത്തിട്ട് നന്നായി എണ്ണയിൽ വറുത്തെടുത്തിട്ട് അതും നല്ലൊരു വിഭവം ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു